ഇപ്പോൾ എന്താണ് പറയുക നമ്മുടെ നാട്ടിലെ അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയാൻ നമുക്ക് ഈ എന്താണ് പറയുക കടൽ കാര്യങ്ങൾ ഒന്നും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല കാരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പൊതുവേ മത്സ്യത്തൊഴിലാളികൾ കുറവാണ് പിന്നെ ഈ പുഴകൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് മത്സ്യബന്ധനം നടത്തുന്നവരാണ് കൂടുതലും നമ്മുടെ സമൂഹത്തിൽ ഉള്ളവർ അപ്പോൾ അവരൊക്കെ ഏകദേശം സെയിം ജാതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവരുടെ ജാതി മതം അങ്ങനെ ഒന്നും അവർ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ കോമൺ ആയിട്ട് എന്താണ് പറയുക എല്ലാവരും ഉത്സവം ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ തന്നെയാണ് അവരും ആഘോഷിക്കുന്നത് അങ്ങനെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു ഉത്സവ രീതിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല കാരണം വയനാട്ടിൽ പൊതുവേ അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ കാണാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ എന്താണ് പറയുക ഇത്തരത്തിലൊക്കെയാണ് എന്താണ് പറയുക മത്സ്യത്തൊഴിലാളികൾ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് കാരണം അവർക്ക് മെയിൻ ആയിട്ടൊരു ജാതി മതം അങ്ങനെ ഒന്നും ഇതുവരെ ആരും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ എനിക്കും അതിനെപ്പറ്റി വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല മത്സ്യത്തൊഴിലാളികൾ പൊതുവേ ഹിന്ദു മുസ്ലിംസ് അങ്ങനെ മുസ്ലിംസ് പിന്നെ ക്രിസ്ത്യാനികൾ അങ്ങനെയുള്ള എല്ലാം തന്നെ വേറെ വേറെ ആൾക്കാരെന്ന് ഉള്ളവരൊന്നുമില്ല അവരെല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ് സാധാരണ മത്സ്യം ഇതൊക്കെ ആക്കാൻ ഒക്കെ പോവുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്